അത് ഞാൻ വിളിച്ചതേ നിങ്ങളുടെ കടയില് മിക്സിയുണ്ടോ

മിക്സീ ഗ്രൈൻഡറും മിക്സിയെ ഗ്രൈന്ഡറും മിക്സിയായിട്ടുള്ളതു വേണം നമുക്ക് പക്ഷെ എങ്ങനെയുണ്ട് വില വിലയെങ്ങനെയുണ്ട് എനിക്ക് എനിക്ക് എനിക്ക് ഞാനേതായാലും എടുക്കുകയാണല്ലോ അപ്പോള് കുറേയാൾക്കാരുള്ളതുകൊണ്ട് എനിക്കൊരു നല്ല സൈസ് വേണം നല്ല നല്ല മിക്സ് നല്ല കമ്പനിയുടെ വേണം പക്ഷേ എന്നാ നല്ലത് തരണം പക്ഷെ നിങ്ങള് നല്ലതു തരാമെന്നൊക്കെ പറഞ്ഞാലും പൊതുവെ നിങ്ങളുടെ കടയെക്കുറിച്ചു വലിയ അത്ര നല്ലൊരു അഭിപ്രായമൊന്നുമില്ല ചില നിങ്ങള് കമ്പനി വാറണ്ടിയൊക്കെയുള്ള മ്മ് ഓക്കെ അങ്ങനെയാണെങ്കില് ഞാനേ ഞങ്ങളുടെ മദറിനെക്കൂട്ടി വരാം വന്നുകഴിയുമ്പോള് നോക്കാം നോക്കി നല്ല സാധനങ്ങള് നിങ്ങള് തരുവാനായ്ട്ട് നോക്കണം പക്ഷെ ഗ്യാരണ്ടി ഗ്യാരണ്ടി പേപ്പറുണ്ടോ ഗ്യാരണ്ടി പേപ്പര് എത്ര വർഷത്തെ ഗ്യാരണ്ടിയാ നിങ്ങളുടെ കടയിലുള്ളത് എത്ര വർഷത്തെയാണ് ഈ പ്രീതി കമ്പനി സുജാത കമ്പനി അങ്ങനെയുള്ള കമ്പനികളുടേതുണ്ടോ ആം അപ്പോള് ഓഫറൊക്കെ ഉണ്ടല്ലോ അല്ലേ ഓഫറുണ്ട് ആ ഓക്കെ ആ ഞാൻ ആ വന്നു കാണാം വന്നു നോക്കിയിട്ട് ഒരു നല്ല കമ്പനികളുടെയൊക്കെ ഉള്ളതാണെങ്കില് എടുത്ത് അതിനു പക്ഷെ എനിക്ക് ഒറ്റയടിക്കു പൈസ തരാനില്ലാത്തതുകൊണ്ട് ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റാൾമെന്റിലതു തരാമോ അപ്പോള് ഞാന് ഈയടുത്ത ദിവസം ആ അപ്പോള് അടുത്ത ദിവസം തന്നെ ഞാന് വരുന്നതായിരിക്കും അപ്പോള് എനിക്കു തന്നു സഹായിക്കണം ഓക്കെയോക്കെ ആ മാനേജര് മാനേജറുള്ളപ്പോഴേ വരത്തുള്ളു അല്ലെങ്കില് കസ്റ്റമേഴ്സ് ചിലപ്പോള് ചീറ്റെയ്തുവിടും അപ്പോള് ഒരു ദിവസം പറയണെ ഏതു ദിവസം വരാന് പറ്റും എന്നാല് അടുത്ത തിങ്കളാഴ്ച വരട്ടെ അടുത്ത തിങ്കളാഴ്ച മ്മ് മ്മ് ആ പന്ത്രണ്ട് മണിക്കു മുമ്പായിട്ടു ഞാൻ വരാം ആകുമ്പോഴത്തേക്ക് വന്ന് എടുക്കാം എന്നിട്ട് ഞാന് എല്ലാമൊന്നു നോക്കി ഗ്രൈന്ഡറും പിന്നെ എനിക്കൊരു ഇന്റക്ഷൻ കുക്കര് കൂടെ വേണം അതു കൂടെ ഞാൻ നോക്കാം കമ്പനിയുടെ നല്ല പ്രീതിയുടെയോ നല്ല കമ്പനിയുടെ നോക്കി അതെടുക്കാവുന്നതായിരിക്കും അതെടുക്കാം ആ കംപ്ലെയ്റ്റ് എനിതിങ് വന്നാലത്ു ശരിയാക്കിത്തരുകയുമൊക്കെ ചെയ്യുമല്ലേ ആ ആ ആ മ്മ് ആ ഓക്കെ ഓക്കെ ഓക്കെ

എന്നാല്പ്പിന്നെ എന്നാല്പ്പിന്നെ ശരി നമുക്ക് അടുത്ത ദിവസങ്ങളില്വന്നു കാണുകയൊക്കെ ചെയ്യാം